ആ ചേട്ടാ വരൂ ആ ഇരിക്കു ഇരിക്കു എവിടെയാണ് വീട്

ആ ഓക്കെ ഓക്കെ പേരെന്താണ് അർജുൻ ആ ഓക്കെ അർജുൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു

ആ ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇതിൽ രജിസ്ട്രേഷനും കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ഇനീഷ്യൽ പേയ്മെൻ്റ് ഉണ്ടാവും ഒര് അഞ്ഞൂറ് രുപ ഒരു കോഷ്യൻ ഡെപ്പോസിറ്റ് പൊലെ ആ പൈസ അടച്ച് നിങ്ങൾക്ക് പിന്നെ മാസം മാസം മന്തിലി ഫീസ് വേറെയുണ്ട് കേട്ടോ മന്തിലി ഒരു നൂറു രുപ മന്തിലി ഒരു നൂറു രുപയേ ഉള്ളൂ ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ ഇനിഷ്യൽ പേയ്മെൻ്റ് ആണ് മന്തിലി ആണെങ്കിൽ മൂന്ന് മാസം അടച്ചാൽ മതി കോഷ്യൻ ഡെപ്പോസിറ്റിൻ്റെ പൈസ നമുക്ക് തിരിച്ചു തരും തിരിച്ചു തരുന്നതായിരിക്കും ആ നമുക്ക് അറ്റ് എ ടൈമിൽ രണ്ട് ബുക്ക് ആണ് ഇപ്പോൾ എല്ലാവർക്കും അവൈലബിളായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മളിപ്പോൾ ഇരുപത് ദിവസമാണ് വച്ചിരിക്കണത് പിന്നെ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ചെയ്യാം വേണമെങ്കിൽ വേണം വേണം അല്ല അത് ഇവിടെ വരണം എന്നിട്ട് റിഇഷ്യു ചെയ്യാനുണ്ട് ആ എല്ലാം രജിസ്ട്രേഡ് ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് വന്ന് റിഇഷ്യു ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് തരാൻ അപ്പം ഒരു ദിവസം ഇവിടെ വയ്ക്കേണ്ടി വരും അത് ഒരു ദിവസം ഇന്നിപ്പോൾ വൈകുന്നേരം ഇവിടെ വച്ചിട്ട് രാവിലെ നിങ്ങൾക്ക് എടുത്തിട്ട് പോകുകയും ചെയ്യാം ഇവിടെ ഇപ്പോൾ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ഉണ്ട് അതുപോലെ നോവൽസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ സ്റ്റോറി ബുക്കുകൾ ഉണ്ട് അതുപോലെ ഈ പിന്നെ ഈ ക്രൈം ത്രില്ലർ അതുപോലത്തെ ബുക്സ് എല്ലാം ഏകദേശം എല്ലാ രീതിയിലുള്ള ബുക്സും ഇപ്പോൾ അവൈലബിൾ ആണ് പഠിക്കേണ്ടതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വന്നിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ കുറച്ച് കുറവാണ് എല്ലാ മേഖലയിലും ടെക്സ്റ്റ് ബുക്കില്ല പക്ഷേ ഗൈഡുകൾ ഉണ്ട് കുറച്ച് ഇപ്പോൾ നിങ്ങൾ റഫറൻസിന് ഇപ്പോൾ നമുക്ക് എൻജിനീയറിംഗിൻ്റെ റഫറൻസിൻ്റെ ഗൈഡിങ്ങ് ഗൈഡ് ഉണ്ട് പിന്നെ പ്ലസ്ടുക്കാർക്കുള്ള ഗൈഡ് ഉണ്ട് പ്ലസ്ടു എല്ലാത്തിൻ്റെയും ഗൈഡുണ്ട് പത്താം ക്ലാസിൻ്റെയും ഗൈഡ് ഉണ്ട് താഴത്തേക്ക് പിന്നെ എൻ്റെ അറിവിൽ ഒമ്പതിൻ്റെയും ഉണ്ടെന്നു തോന്നുന്നു ആ പിന്നെ നമുക്ക് എന്താ ആ റിട്ടേൺ ചെയ്യാൻ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് ഒരു രൂപ വച്ച് ഫൈൻ ഉണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടോ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഐ ഡിയുടെ കോപ്പി കൊണ്ടുവരണം ഏതെങ്കിലും ആയി ഏത് ഐ ഡി ആയാലും മതി ഏതെങ്കിലും ഇപ്പോൾ സ്കൂളിൻ്റെ കോളേജ് ഐ ഡി കാർഡൊ അല്ലെങ്കിൽ വർക്ക് ചെയ്യണ ഐ ഡി കാർഡൊ ഏതെങ്കിലും ഐ ഡി കാർഡ് കൊണ്ടുവന്നാൽ നമുക്കത് ഒന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ശരി ശരി ഓക്കെ